ഇന്നത്തെ തലമുറ ഒട്ടുമിക്കപേരും പട്ടണങ്ങളിൽ ജീവിക്കാൻ ആഗ്രഹിക്കുന്നവരാണ് കാരണം ഇന്നത്തെ നമ്മളുടെ ഈ വില്ലേജ് പോലുള്ള സ്ഥലങ്ങളിൽ അധികം ആരും സാങ്കേതിക വിദ്യകളാൽ മുന്നോട്ട് സഞ്ചരിക്കാത്തവരാണ് ഒട്ടു മിക്ക ഗ്രാമീണരും എന്നാൽ പട്ടണത്തിൽ പോയാൽ ജോലി സാധ്യതകൾ നമ്മളുടെ ജീവിത ശൈലിയെല്ലാം വർദ്ധിക്കും എന്ന ആത്മവിശ്വാസത്തിൻ്റെ പുറത്താണ് ഇന്നുള്ള ഒട്ടു മിക്ക യുവതലമുറം യുവതലമുറകളും പട്ടണങ്ങളിൽ പോയി താമസിക്കുന്നത് അതൊരിക്കലും ഒരു തെറ്റല്ല കാരണം അവരുടെ ജീവിതശൈലി വർദ്ധിപ്പിക്കണമെങ്കിൽ ഗ്രാമീയ സന്ദർഭങ്ങളിൽ നിന്നും മാറി പട്ടണ ചിന്തകളിലേക്ക് പോയാൽ മാത്രമേ അവർക്ക് അവരുടേതായ ജീവിതശൈലി വളർത്താൻ പറ്റൂ എന്നുള്ള തോന്നൽ അവർക്കുണ്ടെങ്കിൽ അവരത് ചെയ്യുന്നതിൽ ഒരിക്കലും തെറ്റല്ല എന്നാൽ ഗ്രാമീണർ എല്ലായിപ്പോഴും അറിവുകളില്ലാത്തവരും പഠിക്കാത്തവരുമാണ് എന്നുള്ള ചിന്തയിൽ ഒരുപാട് പട്ടണ നിവാസികൾ ഇന്ന് നമ്മുടെ സമൂഹത്തിലുണ്ട് അത് തികച്ചും തെറ്റാണ് ഇന്നത്തെ യുവ തലമുറയ്ക്ക് അവർക്കനുയോജ്യമായ ജീവിത പങ്കാളിയെ കിട്ടാൻ ബുദ്ധിമുട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നുണ്ട് കാരണം ഇന്നത്തെ സമൂഹത്തിൽ ഈ സാഹചര്യത്തിൽ നമ്മുടെ ചുറ്റുപാടുമുള്ള യുവതികളിൽ ആർക്കും ഒരു കല്യാണത്തിനോട് താല്പര്യമുള്ളവരുടെ എണ്ണം വളരെ ചുരുക്കമാണ് അവർക്ക് അവരുടേതായ ലൈഫ് എൻജോയ് ചെയ്യണം അവരുടേതായ ജീവിതം ആസ്വദിക്കണം എന്നതിനൊരു തടസ്സമാണ് കല്യാണം എന്ന് വിശ്വാസിക്കുന്നവരാണ് അവർ അതും ഈ പട്ടണത്തിൽ പട്ടണ ജീവിതത്തിൽ നിന്ന് വന്ന ഒരു സാഹചര്യമാണ് കാരണം നമ്മൾക്കറിയാം നമ്മളുടെ അയൽ രാജ്യങ്ങളൊക്കെ ആയ പല സാങ്കേതിക വിദ്യകളാൽ വികസിപ്പി വികസിച്ചെടുത്ത രാജ്യങ്ങളായ കാനഡ ഇറ്റലി യു കെ എന്നീ രാജ്യങ്ങളിലെ എല്ലാ യുവതികളും മേ കല്യാണം എന്നുള്ള ഒരു പ്രക്രിയ അതല്ലങ്കിൽ തനിക്ക് വേണ്ട ജീവിത പങ്കാളി ഒരു പർ ഒരു ഉറച്ച ഒരു കുറേ കാലത്തിലേക്കുള്ള ജീവിത പങ്കാളി എന്ന ആ ഒരു സമ്പ്രദായം നമ്മുടെ മറ്റു രാജ്യങ്ങളിൽ എവിടെയുമില്ല നമ്മടെ ഈ ഇന്ത്യ എന്ന രാജ്യത്ത് മാത്രമാണ് ഒരു ജീവിത പങ്കാളി ജീവി ജീവിതാവസാനം വരെ നമ്മുടെ സുഖാനു ദൂഃഖങ്ങളിലെല്ലാം പങ്ക് ചേരുന്നു എന്ന അങ്ങനത്തെ ഒരു കാഴ്ചപ്പാടിൽ ഒരു ജീവിത പങ്കാളിയെ നമ്മൾ സെലെക്ട് ചെയ്യുന്നത് എന്നാൽ ഇന്നത്തെ പട്ടണ ജീവിതത്തിൽ നിന്നും നമ്മുടെ യുവതീ യുവാക്കൾ ആരും അങ്ങനെയൊരു തീരുമാനത്തിൽ എത്തിച്ചേരുന്നില്ല അവർക്കെല്ലാവർക്കും ഒരു നിശ്ചിത കാലത്തേക്ക് വരെ സന്തോഷിക്കാനും അവരുടെ മനസ്സ് സ ശാരീരിക ആവശ്യങ്ങൾ നേടിയെടുക്കാനും മാത്രമാണ് ഇന്നൊരു പങ്കാളി എന്നല്ലാണ്ട് അവർക്കൊരു ജീവിതപങ്കാളി എന്നുള്ള ഒരു കാഴ്ചപ്പാട് ഇന്നത്തെ യുവതലമുറക്കില്ല അതും ഈ നമ്മുടെ ഗ്രാമീണ ആൾക്കാരുടെ കാഴ്ചപ്പാടായിരുന്നു അതും പട്ടണങ്ങളിൽ ജീവിക്കുന്നവരുടെ കാഴ്ചപ്പാടും ഇന്ന് ശരിക്കും വ്യത്യസ്തമാണ് കാരണം അവരുടെ ജീവിതശൈലിയും ഗ്രാമങ്ങളിൽ ജീവിക്കുന്നവരുടെ ജീവിതശൈലിയും തികച്ചും വ്യത്യസ്തമാണ് എന്നാൽ ഗ്രാമങ്ങളിൽ താമസിക്കുന്നവർ ഒരിക്കലും മറ്റുള്ള ഒരു ഒരു ജീവിത പങ്കാളിയെ തിരഞ്ഞെടുക്കുമ്പോൾ അതൊരു താത്കാലികമായി ഒരു ജീവിതപങ്കാളി ആയിരിക്കില്ല അവർക്കത് അവരുടെ അവസ് ജീവിതാവസാനം വരെ അവർ കൊണ്ട് നടക്കുന്ന അവരുടെ മാത്രം എന്നുള്ളൊരു ചിന്താഗതിയോടെയാണ് അവർ അവരുടെ ജീവിത പങ്കാളിയെ അവർക്ക് വേണ്ടി മാത്രം ജീവിക്കാനും അവരുടെ സുഖാനു ദുഖങ്ങൾ പങ്ക് ചേരാനും അവർക്ക് അവരുടേതായ ആവശ്യങ്ങൾ നേടിക്കൊടുക്കാനും സഹായിക്കണം എന്ന തോന്നലോടെയാണ് അവർ ജീവിതപങ്കാളിയെ കണ്ടെത്തുന്നത് എന്നാൽ പട്ടണത്തിലെ ഒട്ടു മിക്ക പട്ടണങ്ങളിലെയും അവരുടെ ഒരു താത്കാലികമായ ആവശ്യങ്ങൾ സാധിച്ചെടുക്കാനും അവരുടെ ശാരീരിക സുഖങ്ങൾ നേടിയെടുക്കാനും മാത്രമാണ് ഒരു പങ്കാളിയെന്ന നിലയിൽ നോക്കുന്നത്